ഹലോ ആ ചേച്ചി ഞാനവിടെ ചുരിദാർ തുന്നാൻ തന്നില്ലേ പ്രതീജ പ്രതീജയാണ് എൻ്റെ ചുരിദാർ തുന്നി തുടങ്ങിയോ ചേച്ചി അതിൽ കുറച്ചൊരു വർക്ക് ചെയ്യാൻ പറയാൻ അതെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തേ ഇപ്പം വിഷു ഒക്കെ അല്ലേ വരുന്നത് കൃഷ്ണൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കൃഷ്ണൻ്റെയും രാധയുടേയും കൂടെ എംബ്രോയ്ഡറി വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ അത് ബുദ്ധിമുട്ടാവുമോ അത് കാരണം ഞാൻ വേഗം വിളിച്ചത് വെട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായാലോ ആ ആ ആ ആ ഇനി ഇപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത് അപ്പം അമ്പലത്തിലൊക്കെ ഇട്ടുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പെട്ടെന്നാണ് ഓർമ്മ വന്നത് അങ്ങനെ എന്തെങ്കിലുമൊരു വർക്ക് ചെയ്യാം വെറുതെ പ്ലെയിൻ ആയിട്ട് ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിഷൂൻ്റെ മുമ്പ് കിട്ടിയാൽ മതി ഒരു ദിവസം മുമ്പ് കിട്ടിയാലും മതി എന്തെങ്കിലും കുഴപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനൊരു സമയം മതി അത്രേയുള്ളൂ ആ ആ ആ അത് കുഴപ്പമില്ല ചേച്ചി ഇല്ല അത് എത്രയായാലും ഞാൻ തന്നോളാം എന്നാലും നല്ല നീറ്റ് ആയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അത് കാരണമാണ് ചേച്ചിയുടെ അടുത്ത് കൊണ്ട് തന്നത് ചേച്ചി അത് ചെയ്യും എന്നുള്ളത് കാരണം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ വർക്ക് ആ ആ അത് കുഴപ്പമില്ല വർക്ക് നന്നാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻറെ ആണെങ്കിലും ഒക്കെ ചുരിദാർ ഞാൻ പറയാം അവരോട് അപ്പം അവരും കൊണ്ടുവന്ന് തരും ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ഓക്കെ ചേച്ചി താങ്ക് യൂ ഓക്കെ